ആ ഹലോ ആ ഹലോ ആ ആ ഹലോ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആ ഉണ്ട് ആ ഓക്കെ ഇത് ആണോ ആ ആ ഓക്കെ എന്തായിരുന്നു കംപ്ലെയ്ൻറ്റ് ആഹാ ഓക്കെ ആഹാ ആ ഓക്കെ ആ ഓക്കെ ഇതിന് വാറണ്ടിയുണ്ടോ ഉണ്ടല്ലേ നമുക്കത് ഷോറൂമിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തുനോക്കണം കാരണം ഡിസ്പ്ലെൻ്റെ ആണെന്നുണ്ടെങ്കിൽ കേട്ടിടത്തോളം ഇത് ഡിസ്പ്ലെ കംപ്ലെയ്ൻറ്റ് ആവാനാണ് ചാൻസ് കാരണം ലൈൻസും കാര്യങ്ങളും ഓൺ ചെയ്യുമ്പോൾ ലൈൻസും കാര്യങ്ങളും കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡിസ്പ്ലെ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഏതായാലും ചെക്ക് ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ആ വാറണ്ടിയുള്ളതുകൊണ്ട് ഡിസ്പ്ലെയൊക്കെ മാറിക്കിട്ടും അതിന് ഏതെങ്കിലും ഇൻറ്റേർണൽ ഇഷ്യൂസ് എന്തെങ്കിലും അത് ആ അത് ടൈമ് നമുക്ക് അതിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എന്തായാലും ഒരു വൺ വീക്ക് എന്തായാലും വരും അറിയാം ആ അതെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്കെന്താ കംപ്ലെയ്ൻസ് എന്നുള്ളത് എല്ലാമൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ടൈമ് നമ്മൾ മാക്സിമം പറയുന്ന ടൈമ് എന്തായാലും അത്ര എടുക്കില്ല പക്ഷെ ഒളിന്നോള് നമ്മൾ എല്ലാതും ചെക്ക് ചെയ്തിട്ടേ വിടാറുള്ളൂ അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഷോട്ട് അഴിച്ചെന്തെങ്കിലും ഷോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തീർക്കാം പക്ഷെ വേറെന്തെങ്കിലും കംപ്ലെയ്ൻസ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമ് എടുക്കും അതാണ് നമ്മൾ പറയുന്നത് ഇത്ര ടൈമ് വരും എന്ന് അതിന് കീബോഡിന് കംപ്ലെയ്ൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മിക്കവാറും ചിലപ്പോൾ ഡിസ്പ്ലെ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഡിസ്പ്ലെ ആയിരിക്കും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരിക ആ അതെയതെ നമുക്കെന്തായാലും മാക്സിമം നമുക്ക് മാക്സിമം നമുക്ക് നോക്കാം നിങ്ങൾ എന്തായാലും കൊണ്ട് വന്നോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ അതെന്താണെന്നുള്ളത് കണ്ടെത്തി നമുക്ക് സൊല്യൂഷൻ ചെയ്യാം ഹാ ആ ആഹാ ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ കുഴപ്പം ഇല്ല കൊണ്ട് വന്നോളൂ നമുക്ക് എന്തായാലും മാക്സിമം പറ്റാവുന്നിടത്തോളം മാക്സിമം നമുക്ക് അടുത്ത ദിവസം തന്നെ തരാൻ നോക്കം ആ ആ ഒരു ഫൈ ഡെയ്സ് നമ്മളൊരു വൺ വീക്ക് എന്നാണ് പറയുക കാരണം നമ്മൾ ഒരു ത്രീ ഡെയ്സ് അല്ലെങ്കിൽ ഫോർ ഡെയ്സ് എന്നുള്ള ഒരു ഡെയ്സ് എന്ന കാര്യം പറഞ്ഞിട്ട് അവസാനം ആ ഡെയ്സിനുള്ളിൽ തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുതന്നെ ചോദിക്കും കാരണം നാല് ഡെയ്സ് ആണല്ലോ പറഞ്ഞത് പിന്നെ എന്ത് കൊണ്ട് ഇത്രയും ഡെയ്സ് ആവുന്നു എന്നുള്ളത് ചോദിക്കും അതാണ് നമ്മൾ മാക്സിമം ഒരു വൺ വീക്ക് പറയുന്നത് സോ നമുക്ക് നോക്കാം ഇനിയിപ്പം രണ്ടായാലും നമ്മളൊരു വൺ വീക്കിനുള്ളിലെന്തായാലും തരാൻ നോക്കാം ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓ എന്നാൽ ഓക്കെ സാർ ഓക്കെ